ഹലോ കമാഷി ഹെൽത്ത് സെൻ്ററല്ലേ ഞാൻ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ കുട്ടിയുടെ ആരോഗ്യ തലത്തിൻ്റെ കീഴിൽ പക്ഷേ കുട്ടി നിങ്ങൾ ഒരു പരിശോധനയ്ക്ക് എൻ്റെ കുട്ടിയെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധെയ ആക്കേണ്ടതുണ്ട് ഒരു ഷെട്ട്യുൾ ബുക്ക് ചെയ്യുന്നതിനാണ് ഞാൻ ഈ വിളിക്കുന്നത് അതിന് എനിക്ക് പ്രാദേശ്യ കാര്യ ഹെൽത്ത് ഓഫീസറുമായോ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറുമായോ സംസാരിക്കേണ്ടിയതുണ്ട് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് എൻ്റെ കുട്ടിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നതിനും അതിന് വേണ്ടുന്ന പ്രാഥമിക നടപടി സ്വീകരിക്കണമെന്നും സ്വീകരിക്കുന്നതിനായി ഹെൽത്ത് ഓഫീസറെ മുൻകൂട്ടി അറിയിക്കുകയും അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്തു വെക്കേണ്ടതും ആണെന്ന് ഹെൽത്ത് ഓഫീസറിനോട് അറിയിക്കുന്നു ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപതാം തീയതി പത്ത് മണിയാവുമ്പോൾ ഹെൽത്ത് സെൻ്ററിൽ എത്തിച്ചേരുന്നതായിരിക്കും എത്തിച്ചേരുന്ന അവസരത്തിൽ ഈ ബുക്കിംഗ് സ്ലോട്ട് എനിക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു